ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാല് അഞ്ച് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പതിനാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പത്തൊൻപത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട്